വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ മെച്ചപ്പെട്ട വികസനത്തിനു വേണ്ടിയിട്ട് ടി വി സ്മാർട്ട് ഫോൺ പുതുതലമുറകളിലെ പുതു നവ മാധ്യമങ്ങളിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നു വിശ്വസിക്കുന്നൊരാളാണ് ഞാൻ ഒരുപാടധികം ഒരുപാടധികം അത്തരം മേഖലകൾ വളരേണ്ടതുണ്ട് കുട്ടികളുടെ വികസനത്തിനും വിദ്യാഭ്യാസപരമായ മേ വികസനത്തിനായാലും ഇന്നത്തെക്കാലം ഇന്നത്തെക്കാലത്ത് നവമാധ്യമങ്ങൾ നവമാധ്യമങ്ങളായ ഇൻറ്റർനെറ്റ് ഫേസ്ബുക്ക് അങ്ങനത്തെ മീഡിയാസും പിന്നതു പോലെ തന്നെ ടി വി റേഡിയോ റേഡിയോയില്ല ടി വി മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ സ്മാർട്ടായ മേഖലകൾ എന്നീ മേഖലകളൊരുപാടധികം വളർച്ച പ്രാപിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എങ്കിലും ഇനിയും വളരേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിൽ വിശ്വസിക്കുന്നൊരാളാണ് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതിലൂടെ കുട്ടികൾ കുട്ടികൾ ഒരുപാട് ആകർഷകമായ രീതിയിൽ പഠനത്തിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും പഠനത്തിൽ പൊതുവായ മേഖലകളിലാണെങ്കിലും ഒരുപാടധികം വളർന്നു വരും ഒരുപാടധികം മാറ്റങ്ങളവരിലുണ്ടാകും എന്നു വിശ്വസിക്കുന്നു കുട്ടികളുടെ മെച്ചപ്പെട്ട വികസനത്തിനു വേണ്ടി കൂടുതൽ വിദ്യാഭ്യാസപരമായ കണ്ടൻറ്റുകൾ ടീ വിയിലും ഓൺലൈനിലും വേണം വേണം എന്നു തന്നെ വിശ്വസിക്കുന്നൊരാളാണ് ഞാൻ വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ ഞാനാഗ്രഹിക്കുന്നുമുണ്ട് അപ്പം ടീ വിയിലൂടെ പുതിയ പുതിയ കണ്ടൻ്റുകളിറക്കി വിടുന്നതിലൂടെ കൂടുതലും കുട്ടികൾ ഇന്ന് ടീ വീനേക്കാളും കൂടുതൽ കുട്ടികളിന്നുപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണാണെന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ കൂടുതൽ കണ്ടൻ്റുകളിറക്കിവിടുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടുന്നതായ്ട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടൻ്റുകൾ സ്മാർട്ട് ഫോണിൽ കുട്ടികൾ കാണണമെങ്കിൽ സ്മാർട്ട് ഫോണുകളിൽത്തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ടീ വി ഉപയോഗിക്കുന്നവരിപ്പോൾ പ്രായമായതും അംഗപരിമിതരും അങ്ങനെയുള്ള ആളുകളാണ് പ്രായം ചെന്നവരാണ് ഇന്നത്തെക്കാലത്ത് ടീ വികൾ ഉപയോഗിക്കുന്നത് കുട്ടികൾ കൂടുതലായും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് ഒരുപാടധികം പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഇന്നു നാം കടന്നു പോകുന്നത് അതു പോലെ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നവരുമാണ് നമ്മൾ അപ്പോൾ കുട്ടികൾ വിദ്യാഭ്യാസപരമായ ഒരുപാടധികം മെച്ചപ്പെടേണ്ടതുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്നും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടവർ കുട്ടികൾ കുട്ടികളെന്നല്ല മുതിർന്നവരാണെങ്കിലും ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ സ്മാർട്ട് ഫോൺ വഴിയാണെങ്കിലും ഇൻറ്റർനെറ്റ് മേഖലകളിലൂടെയാണെങ്കിലും നേരിടുന്നുണ്ട് അപ്പതിനൊക്കെയൊരു എതിര് ഒരു തിരിച്ചടിയെന്ന രീതിക്കു വേണം ഇനി ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് അപ്പം അതിനായി പുതിയ പുതിയ കണ്ടൻ്റുകളിറക്കുന്നതിൽ തെറ്റില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ മാതാപിതാക്കളും ഞങ്ങളെപ്പോലെയുള്ള ആളുകളും എന്നു ഞാൻ വിശ്വസിക്കുന്നു കുട്ടികളുടെ വളർച്ച തന്നെയാണ് എല്ലാവർക്കും പ്രാധാന്യം അതിനു വേണ്ടിയിട്ട് കണ്ടൻ്റുകളിറക്കി വിടുക കണ്ടൻ്റുകൾ ടീ വിയിലൂടെ ഉപയോഗിക്കുന്നതിനേക്കാളും ഭേദം സ്മാർട്ട് ഫോണുകളിൽത്തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു സ്മാർട്ട് ഫോൺ അഡിക്റ്റാകാണ്ടിരിക്കാൻ കുട്ടികളും കുറേ ശ്രദ്ധിക്കേണ്ട അതു നമ്മൾ മാതാപിതാക്കളാണെങ്കിലും ഒരുപാടധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്മാർട്ട് ഫോണുകൾക്കഡിക്റ്റായിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നൊരു റിക്കവറിയുണ്ടാകാൻ ചാൻസില്ല അപ്പം മാക്സിമം അതു നോക്കിയിട്ടു വേണം എന്ന്